ആ എനിക്ക് വളർത്തുമൃഗങ്ങളെ ഒരുപാടിഷ്ടമാണ് ഇഷ്ടമാണെന്ന് എന്തുകൊണ്ടാണ് വളർത്തുമൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പൊതുവെ നമ്മള് പറയാറുണ്ട് മനുഷ്യന്മാരെക്കാൾ നമ്മൾക്ക് മൃഗങ്ങൾ മൃഗങ്ങൾ നമ്മളോട് തിരിച്ചു അവര് അവരുടെ സ്നേഹം കാണിക്കും അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹം എല്ലാക്കാലത്തും ഉണ്ടാവുമെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചു ആ ഒരു മനുഷ്യരെ ഒരിക്കലും തിരിച്ചു ഉപകാരം ചെയ്തില്ലെങ്കിലും മൃഗങ്ങൾ ചെയ്യുമെന്നുള്ളൊരു നമുക്ക് ഒരു വിശ്വാസമുണ്ട് തീർച്ചയായും അത് ശരിയാണ് കാരണം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം വാത്സല്യം ഒക്കെ എന്നൊക്കെ പറയുന്നത് നമുക്ക് തിരിച്ചുകിട്ടും അല്ലെങ്കിൽ അത് എപ്പോഴും അവർ അവർ നമ്മളോട് കാണിക്കും എന്ന പറയാം അങ്ങനെ വളർത്തുമൃഗങ്ങളെ ഒരുപാടിഷ്ടമുള്ള ആളാണ് ഞാന് എൻ്റെ വീട്ടില് ഒരു വളർത്തുമൃഗമുണ്ട് ഞങ്ങള് വീട്ടില് വളർത്തുന്നൊരു നായയുണ്ട് അപ്പോൾ പേര് ബ്ലാക്കി എന്നാണ് അപ്പോൾ അവനെ വളർത്താൻ തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി അവൻ ഇവിടെ വന്നിട്ട് അപ്പോൾ ഭയങ്കര ആൾക്ക് നല്ല എന്നെ ഭയങ്കര ഇഷ്ടമാണ് മറ്റു കാര്യം നമുക്കെപ്പോഴും നമ്മൾ ഞാൻ പുറത്തോട്ട് പോകുന്ന സമയത്തു എൻ്റെ പിന്നാലെ ഓടി വരും പിന്നെ അമ്മയൊക്കെ പിടിച്ചുനിർത്തിയിട്ടാണ് അവിടെ നിൽക്കുക നമ്മളൊരു കൂട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് അവനെ വളർത്താറുള്ളത് എല്ലാത്തരം ഭക്ഷണവും കൊടുക്കാറുണ്ട് ആഴ്ചയിൽ നോൺവെജും മറ്റ് കാര്യങ്ങളും മുട്ടയും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ മൃഗങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതലും നമ്മള് മനുഷ്യരെ ഇഷ്ടപ്പെടണേൽക്കാളും നമ്മൾ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും എന്ന് പറയാം